ആ പറഞ്ഞോളൂ നമസ്കാരം

ഓ ഞാൻ ഇതിൽ ഇത് ഞാനൊരു പുതിയ ബിസിനസ്സ് തുടങ്ങാനാണ് ആ ഒരു ആ ആ പുതിയ ബിസിനസ്സ് തുടങ്ങാൻ എൻ്റെ പേര് ഗീതാമണി കാ കാട്ടാക്കട തൂങ്ങാംപാറയാണ് വീട് ഒരു അവിടെ ഇപ്പം ആ ഇപ്പം പറ സാറെ കേൾക്കുന്നുണ്ട് ഒരു പുതിയ ബിസിനസ്സ് ചെയ്യാൻ ഒരു പുതിയ ബിസിനസ്സിൻറ്റാവശ്യത്തിന് ലോണെടുക്കാൻ വേണ്ടീട്ടാണ് വിളിക്കുന്നത് ആ ഓ

ആ ഒരു പത്ത് ലക്ഷം രൂപ

ആ ഓക്കെ അതെ അതെ അതെ ആ ഒക്കുണ്ടയായിട്ട് നടത്താൻ വേണ്ടീട്ട് ആ ആ ആ നെറ്റ് ബാങ്കിംഗ് കൂടി നമുക്ക് തുടങ്ങണമായിരുന്നു തുടങ്ങാം ആ എസ് ബി ഉണ്ട് ഉണ്ട് ആ അല്ലല്ല ഉണ്ട് എസ് ബി ഐൽ അകൗണ്ട് ഉണ്ട് ഉണ്ട്

ആ ആ ആ ഇത് നിങ്ങൾ ചെയ്ത് തരുവല്ലോ അല്ലേ ഇത് ഇത് നിങ്ങൾ ചെയ്ത് തരുവല്ലോ ഈ നെറ്റ് ബാങ്കിംഗ് ചെയ്ത് തരും ആ ആ ചെയ്യാൻ പറ്റും ആ ഓ ഓ ഓ ആ ആ ഈ തട്ടിപ്പ് ഓൺലൈൻ ആ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ ആ ആ

പലിശ ആ ആ ആ ഓക്കെ ആ

ആ ആ ഞാനിന്ന് ബാങ്ക് ആ ഞാനിന്ന് ബാങ്കിൽ വന്നാലിതിനെ കുറിച്ച് ഇതിന് പറഞ്ഞ് ആ ആ

ആ ഓ ഓ ആ ആ സാർ ആ ഓക്കെ ഓക്കെ സമയം ആ സമയം എപ്പോഴായാലും മതിയാവോ വന്നാൽ മതി വന്നാൽ കിട്ടും ഉണ്ടാവും ഓക്കെ ഓക്കെ ആ ആ എന്തൊക്കെ കൊണ്ട് വരണം വരുമ്പോഴ്ത്തേക്ക് ഓ ആ ആ ആ

ഓക്കെ ഓക്കെ ഓക്കെ ഓ ആ ഓ ഓ ഓ ഓക്കെ ശരി ശരി ഓക്കെ ശരി ഓക്കേ ശരി ആ